അതായത് ഈ പണ്ടൊക്കെ നമ്മുടെ അച്ഛൻ്റെ അച്ഛമ്മമ്മാരൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടതെങ്ങനെയായിരുന്നു അതായത് ഒരു അവർ കൈ കൊണ്ടു തന്നെ തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്തായിരുന്നു അവർ യൂസ് ചെയ്തതൊക്കെ അതിൻ്റെ മുമ്പ് കുറച്ചും കൂടി മുമ്പ് പോകണമെങ്കിൽ അയൺസ് എയ്ജ് ബ്രോൺസ് ഏജ് പാലിയോലിത്തിക്ക് ആ ഒരു ഏജൊക്കെ പോകുമ്പോൾ അവർ യൂസ് ചെയ്ത ഡ്രസ്സൊക്കെ എങ്ങനെയായിരുന്നു ലൈക്ക് ഒരു അനിമലിനെ ഹണ്ട് ചെയ്തിട്ട് ആ അനിമലിൻ്റെ സ്കിന്നായിരുന്നു അവർ ഡ്രസ്സായിട്ട് യൂസ് ചെയ്തത് സോ അങ്ങനെ ഇരുന്ന ഒരു ജൻറേഷൻ ഡെവലപ്പായി ഡെവലപ്പായി ഇപ്പം ഇവിടെ വന്നു നിൽക്കുന്നത് എങ്ങനെ കീറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണോ ആദ്യം ശരീരം മറയ്ക്കാൻ വേണ്ടി അവർ ഒരു അനിമലിനെ ഹണ്ട് ചെയ്തു ആ അനിമലെ അവർക്ക് ഫുഡ്ഡായിട്ട് യൂസ് ചെയ്തു ഡ്രസ്സായിട്ട് യൂസ് ചെയ്തു ദെൻ അതു കഴിഞ്ഞിട്ട് അവർ ആ അനിമൽ കഴിഞ്ഞിട്ട് അതു കഴിഞ്ഞിട്ട് ഒരു ഒരു ലീഫ് ഒക്കെ വെച്ചിട്ട് അവർ ഡ്രസ് ഉണ്ടാക്കി അതും അവർ ഇടാൻ തുടങ്ങി പിന്നെ അതു കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഓരോരോ ഇതായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു മോഡേൺ ഇട്ടു വന്നു കോട്ടൺ സിൽക്ക് ഫൈബർ അങ്ങനെ ഇങ്ങനെ കുറേ ഡ്രസ് മെറ്റീരിയൽസൊക്കെ ഇപ്പം വരാൻ തുടങ്ങി ഈ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ പണ്ടൊക്കെ ഇവർ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ ഇപ്പോൾ മെഷീനാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മോഡൽസ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഡിസൈൻസ് എല്ലാം കൂടി ഡിഫറെൻറ്റ് ഒരു വെറൈറ്റി ടൈപ്പ്സ് ഓഫ് ഡ്രസ്സ് ഇടാനുള്ള ഒരു ജനറേഷനാണ് നമ്മളിപ്പം നിൽക്കുന്നത് എൻറ്റൊരു ഒപ്പീനിയനിൽ ഞാൻ ഒരു ഡ്രസ്സ് ഇടണം എങ്കിൽ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഒരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അത് ഞാൻ ചൂസ് ചെയ്യും അങ്ങനെ ഞാൻ ചൂസ് ചെയ്തിട്ട് എനിക്ക് പുറത്ത് കൊടുക്കുന്നത് കംഫർട്ടബിൾ അല്ലെങ്കിൽ അതെൻ്റെ കൈ കൊണ്ടു തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും എനിക്ക് ബെസ്റ്റ് അപ്പം ഞാൻ ഏകദേശം ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഞാൻ ചൂസ് ചെയ്തു എൻ എനിക്ക് ഏതു ഡ്രസ്സ് വേണോ ആ ഡ്രസ്സിൻ്റെ ഡിസൈനിൽ ഞാൻ എല്ലാം കട്ട് ചെയ്തു കട്ട് ചെയ്തു എല്ലാം ഞാൻ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയം എനിക്ക് ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ലൂസായി ഞാൻ ആദ്യം എടുക്കുന്ന ഷേപ്പിൽ തന്നെയായിരിക്കും എൻ്റെ ബോഡി ഷേപ്പ് ബേസ് ചെയ്തിട്ട് ഞാൻ എല്ലാം വെട്ടിയൊക്കെ വെച്ചാലോ വെയ്ക്കുകയാണെങ്കിലും അതു കട്ട് ചെയ്ത് സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊന്ന് ഭയങ്കര ലൂസായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായിരിക്കും ഇപ്പം ഭയങ്കര ലൂസായാണ് എനിക്കതിന് ഒന്നു കൂടി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പക്ഷെ ഭയങ്കര ടൈറ്റായി പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ബികോസ് അവിടെ തയ്ക്കാൻ വേറെ സ്പേസ് ഇല്ലാത്തതു കൊണ്ട് നമുക്കാ ഡ്രസ്സൊന്നും ചെയാൻ പറ്റില്ല നമുക്കത് വെറുതെ കൊണ്ടു പോയി കളയണം ഈ ലൂസാകുന്ന ഡ്രസ്സൊക്കെ നമുക്ക് ഒന്നല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ആ ഡ്രസ്സ് തന്നെ ഇടാം പക്ഷെ ടൈറ്റായി പോയിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒട്ടും ഇടാൻ പറ്റില്ല അതൊന്ന് നമുക്ക് വേറെ ആർക്കെങ്കിലും അത് ബാഹാവുന്ന ആൾക്കാർക്ക് കൊടുക്കാം അല്ലെങ്കിലത് കൊണ്ടു പോയി കളയുക ഇതായിരിക്കും നമുക്ക് ഓപ്ഷൻ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഒരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ നമുക്ക് പറ്റി ഇപ്പം നമ്മുടെ ഷേപ്പ് ബേസ് ചെയ്തിട്ട് നമ്മൾ തുണി ആദ്യം വരയ്ക്കണം പിന്നെ അതു കഴിഞ്ഞിട്ട് അതിൽ നിന്നു കുറച്ചും കൂടി ഒരു വൺ ഇഞ്ച് അല്ലെങ്കിൽ ടു ഇഞ്ച് നമുക്കത് കട്ട് ചെയ്ത് തയ്ക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് നമുക്കതിനെ സ്റ്റിച്ച് ചെയ്യാനും പറ്റും സ്റ്റിച്ച് ചെയ്തത് ഭയങ്കര ടൈറ്റായി കഴിഞ്ഞാൽ അത് നമുക്ക് ആ സ്റ്റിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇടാനും പറ്റും അതു പോലെ തന്നെ ഇപ്പോഴത്തെ ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മെറ്റീരിയൽ എടുത്ത് തയ്ക്കണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് ഒരു ഡ്രസ്സ് നമ്മളെടുക്കുന്നു ആ മെറ്റീരിയൽ നല്ലതാണെന്നു നോക്കുന്നു അതു തയ്ക്കുന്നു എല്ലാം ഭയങ്കര റേറ്റാണ് ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഒരു കോട്ടൺ ഡ്രസ്സെടുക്കുന്നു വീട്ടിൽ കൊണ്ടു വന്ന് അമ്മമാരേൽ കൊടുക്കുന്നു അവർ നമ്മുടെ ഈ ഇതൊക്കെ വെച്ചിട്ട് അവരത് തയ്ച്ചു നമുക്ക് തരുന്നു പക്ഷെ ഇപ്പം ഇങ്ങനെയല്ല ഇപ്പമെന്നു പറയുമ്പോൾ മെഷീൻസൊക്കെ ഉണ്ട് സോ ഇപ്പം നമുക്ക് ഏകദേശം ഒരു ഡ്രസ്സ് വേണം ഒരു കല്ല്യാണമായിക്കോട്ടെ ഇല്ലെങ്കിലൊരു ഫങ്ഷൻ ആയിക്കോട്ടെ ഒരു ഡ്രസ്സ് വേണമെങ്കിൽ നമ്മൾ ആ ഡ്രസ്സിന് ആദ്യം എടുക്കുന്നു പറയുന്നതെല്ലാവരും പറയുന്നത് തുണി എടുത്ത് തയ്ക്കാൻ അപ്പം അങ്ങനെ തുണിയെടുത്ത് തയ്ക്കുമ്പോൾ വരുന്നതെന്ന് പറയുമ്പോൾ പൈസ കൂടുതൽ ചിലവാകും അതും നമ്മൾ ആദ്യം തുണിയെടുക്കാൻ വേണ്ടി ഒരു പൈസ ദെൻ അതു തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടി ഒരു പൈസ അങ്ങനെ കുറേയുണ്ടല്ലോ ഓൾറെഡി തയ്ച്ചു വെക്കുക വെച്ച ഡ്രസ്സ് തന്നെ നമുക്ക് ഇട്ട് നോക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ ആകത്തില്ല സോ ഇതു വരുമ്പോൾ ഇവർക്ക് ലാക്ക് ഓഫ് മണി വരും അതുപോലത്തെ ലാക്ക് ഓഫ് ടൈം ഈ ചെയ്യുന്നത് മെഷീനിലാണെങ്കിലും മെഷീനിൽ ഏകദേശം ഒരു ഡിസൈൻ വരികയാണെങ്കിൽ ആ ഡിസൈൻ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ അതുപോലെ തന്നെ നമുക്ക് തയ്ച്ചു തരും പക്ഷെ കൈ കൊണ്ട് തയ്ക്കുന്നതും മെഷീൻ കൊണ്ട് തയ്ക്കുന്നതിന് കുറേ ഡിഫറൻസുണ്ട്